ഹലോ ആ പറഞ്ഞോളൂ ആരായിരുന്നു ആ ആ ആ ഓക്കെ ആ ഓക്കെ ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് എന്താണ് പറയുക ട്രഡീഷണൽ ആയിട്ട് വരുന്ന അമ്പലങ്ങൾ അങ്ങനെ വരുന്നുണ്ട് അമ്പലം പള്ളി അതേപോലത്തെ ഒക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും റിസോർട്ട് അതേപോലത്തെ അവിടെ നിൽക്കണമെങ്കിൽ ഇത് നമുക്ക് ഇപ്പം ഇവിടുത്തെ കഥകളി അതേപോലെ തന്നെ എന്താണ് പറയുക മോഹിനിയാട്ടം കുച്ചിപ്പുടി അതേപോലത്തെ കുറേ ആർട്ട് ഫോംസ് ഉണ്ട് അപ്പം അതൊക്കെ വേണമെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് ഉണ്ട് ഇപ്പം ആലപ്പുഴ ഒക്കെ ആണെങ്കിൽ എന്താണ് പറയുക നമുക്ക് നമ്മുടെ ഈ ഹൗസ് ബോട്ട് ആ ഹൗസ് ബോട്ടിംഗും അതേപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അപ്പം നമുക്ക് വേണ്ടി അവിടെ തന്നെ ഫുഡ് അറേഞ്ച് ചെയ്ത് നമുക്ക് ഹൗസ് ബോട്ടുകളിൽ നിൽക്കാൻ അങ്ങനെ ഒക്കെ പറ്റും അമ്പലം അല്ലാണ്ട് ഇപ്പം വരുന്നതെന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മുടെ വയനാട് എന്താണ് പറയുക കുറേ ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഉണ്ട് ഇപ്പോൾ എന്താണെന്നുവെച്ചുകഴിഞ്ഞാൽ കാരാപ്പുഴ ഡാം അതേപോലെ തന്നെ കുറേ ഡാമും അങ്ങനെ കുറേ ഇപ്പം നമുക്ക് ഇപ്പം കാട്ടിലേക്ക് ഒക്കെ പോവാൻ ആണെങ്കിൽ അങ്ങനത്തെ ട്രക്കിംഗ് അങ്ങനത്തെ സ്പോട്ട് ഒക്കെ ഉണ്ട് ഇപ്പം കോഴിക്കോട് ഒക്കെ കോഴിക്കോട് ഒക്കെ വരുകയാണെങ്കിൽ ബീച്ച് അതേപോലത്തെ കുറേ സ്പോട്ട് ഒക്കെ വരുന്നുണ്ട് ഇപ്പം ആ തൃശ്ശൂർ അങ്ങനെ തന്നെ കുറേ റിലേറ്റഡ് ആയിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇപ്പം ഫുൾ വയനാട് അല്ല ഓൾ ഓൾ കേരള അല്ലേ നോക്കുന്നത് അപ്പോൾ ഒരു എത്ര വീക്ക് അല്ലെങ്കിൽ എത്ര മാസത്തേക്ക് ആണ് നോക്കുന്നത് ആ ഓക്കെ അപ്പം നമുക്കിപ്പം പഴശ്ശിയുടെ കുടീരങ്ങളും അങ്ങനത്തെ കുറേ സംഭവം ഉണ്ട് വയനാട്ടിൽ വായനാട്ടിൽ മാത്രമല്ല വേറെ ജില്ലയിലും ഉണ്ട് നമുക്ക് അതൊക്കെ നോക്കാം പിന്നെ കഥകളി അങ്ങനത്തെ കുറച്ച് ആർട്ട് ഫോംസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും പിന്നെ ആ എന്താണ് പറയുക എന്തോ ആ പിന്നെ വന്നിട്ട് നമ്മുടെ ഹൗസ് ട്രീ ഇല്ലേ അതേപോലത്തെ ഹട്ടും ഹിൽ സ്റ്റേഷനും റിസോർട്ടും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മൾ ടീ ഫാമിംഗ് ഫാം അതേപോലെ തന്നെ എന്താണ് പറയുക ആ അതേപോലത്തെ ഫാമിംഗും മൂന്നാറിലൊക്കെ അങ്ങനത്തെ കുറേ സ്പോട്ട് ഉണ്ട് ആ അപ്പോൾ അവിടെ ഒക്കെ നമുക്ക് വേണമെങ്കിൽ സ്റ്റേ ചെയ്തിട്ട് അല്ലെങ്കിൽ പോയി വരുവോ അങ്ങനെ നോക്കാം ഇത് ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുതരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ റെന്റഡ് ആയിട്ടുള്ള കാറും അതേപോലെ ബൈക്കോ എന്താണ് വേണ്ടത് വെച്ചാൽ അത് പറഞ്ഞാൽ മതി ആ ഓക്കെ ഓക്കെ അതൊന്നും പ്രശ്നമില്ല എന്താണെന്നുവെച്ചുകഴിഞാൽ ഇപ്പം ഞാൻ നിങ്ങളുടെ ഞങ്ങളുടെ പാക്കേജിൽ ആണ് ഞങ്ങൾക്ക് ഇട്ടുതരാം ഒരു ടു മന്ത് വൺ മന്ത് പാക്കേജ് ഉണ്ട് അത് ഇട്ടുതരാം അപ്പം അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളും ഫുഡ് ഡീറ്റെയിൽസും എല്ലാം ഇട്ടുതരാം വാട്ട്സ്ആപ്പ് ചെയ്തുതരാം ഇത് നിങ്ങൾ വരുന്ന ടൈം ഒന്ന് കറക്റ്റ് പറയണം കേട്ടോ

എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി ആ ഓക്കെ താങ്ക്യൂ